കേരളീയക്കാരുടെ ദേശിയ ഉത്സവമാണ് ഓണം എന്നുപറയുന്നത് ജാതി മത ഭേദമന്യെ കേരളത്തിലെ എല്ലാ ആൾക്കാരും ഒത്തുകൂടിയാഘോഷിക്കുന്ന ഒന്നാണ് ഓണം എന്ന് പറയുന്നത് ഓണം പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ ദിനത്തിലാണ് ആഘോഷിക്കപ്പെടുന്നത് അന്നേദിവസം കേരളം പണ്ട് ഭരിച്ചിരുന്ന അസുരചക്രവർത്തകിയായ മഹാബലി തമ്പുരാൻ നാടുകാണാൻ വരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത്തം മുതൽ പത്തു ദിവസം വരെ വീട്ടിൻ്റെ മുൻപിൽ പൂക്കളം ഇട്ട് എല്ലാവരും ആ ഓണം ആഘോഷിക്കുന്നു ഓണമെന്ന് പറയുമ്പോഴേ ഏതൊരു കേരളീയക്കാരൻ്റെ മനസിലേക്ക് ആദ്യം വരുന്ന ഒന്നാണ് പുലിക്കളിയും വള്ളംകളിയും ഒരൊറ്റതവണയെ ഞാൻ പുലികളി കണ്ടിട്ടേ കണ്ടിട്ടുള്ളൂ പക്ഷെ അതിപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുന്ന ഒന്നാണ് കുറെ വ്യക്തികൾ അവരുടെ ശരീരത്തിൽ പുലിയുടെ മുഖവും എല്ലാം വരച്ചു ചേർത്ത് തുള്ളുന്നത് കാണാൻ ഒരു ഹരം തന്നെയാണ് അതുപോലെ തന്നെയാണ് വള്ളംകളി ഇതുവരെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷെ അവസരം കിട്ടിയാൽ എനിക്ക് ചെയ് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട് വാർത്തയിലൂടെയും ടി വി യിലൂടെയും ഞാൻ കണ്ടിട്ടുണ്ട് അത്കൊണ്ട് തന്നെയാണ് എനിക്ക് നേരിട്ട് കാണാൻ ഹരം തോന്നുന്നത് പണ്ട് ചെറുപ്പത്തിൽ കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാവരും ഓണം ആഘോഷിക്കാൻ വേണ്ടി ഒത്തു കൂടുന്നത് ഏറ്റവും സന്തോഷം തരുന്ന ഒന്നാണ് മുതിർന്നവരെല്ലാം ഒരുമിച്ച് ചേർന്ന് പാചകം ചെയ്യുന്നതും അതുപോലെ കുട്ടികളെല്ലാം ചേർന്ന് ഓണക്കളികൾ കളിക്കുന്നതും അവിടെ കുട്ടികൾ മാത്രമല്ല പ്രായം മറന്ന് ഒപ്പം കൂടുന്ന മുതിർന്നവരും ഉണ്ടാകും സുന്ദരിക്ക് പൊട്ട് തൊടുന്നതും പൂക്കളമത്സരോം എല്ലാം ഒന്നിനൊന്നുമെച്ചമാണ് എ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം സുന്ദരിയ്ക്കു പൊട്ടുതൊടുന്നതു തന്നെയാണ് കുട്ടികളെല്ലാവരും മുതിർന്നവർ പാചകം ചെയ്യുമ്പോൾ അന്നേദിവസം രാവിലെ അന്നേദിവസം രാവിലെ മുറ്റത്തെ പൂക്കൾ ഇരുത് പൂക്കളം ഇടാൻ ഓടി നടക്കും പുതിയ ഓണക്കോടികളും അത് കിട്ടുന്നതൊരു ഹരം തന്നെയാണ് ഓണമെന്നു കാ പറയുമ്പോഴേ അവർ കാത്തിരിക്കുന്നത് പുതിയ ഓണക്കോടികൾ കിട്ടാൻ വേണ്ടി ആയിരിക്കും അതേ ഡ്രെസ്സുകൾ ഇട്ട് അവർ ഓണം ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കും വീട്ടിൽ മാത്രമല്ല അവരുടെ കോളേജുകളിലും സ്കൂളുകളിലും ഓണം അവർ ആഘോഷിക്കും സ്കൂളുകളിൽ പാട്ടായിട്ടും ഡാൻസായിട്ടും അവർ ഓണാഘോഷിക്കുമ്പോൾ വീടുകളിൽ സന്ധ്യാവട്ടം ഒരുക്കിയും പൂക്കളും ഇട്ടും ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും ഒപ്പം കളിച്ചുമൊക്കെയായിരിക്കും ഓണം ആഘോഷിക്കുന്നത് എൻ്റെ ചെറുപ്പത്തിലും ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മ എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ് ചേട്ടൻ്റെയും ചേച്ചിയുടെയും കൈയുംപിടിച്ച് ഓണത്തിന് സന്ധ്യ വിളമ്പാൻ ഓ വാഴയില വെട്ടാൻ പോകുന്നതാണ് ഏറ്റോം ആദ്യം ഓർമ്മ വരുന്ന ഒന്ന് പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ചെറിയ ചെറിയ കുടുംബം ആവുകയും പലയിടത്തും താമസിക്കുകയും ചെയുമ്പോൾ ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും ഒത്തുകൂടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും ഓണാഘോഷം വരുന്ന ഒരു വിഷ് അത് തന്നെയാണ് ഒരു ആശംസ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് തന്നെ പറയാം നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ചിലരെങ്കിലും ഓണത്തിന് നമ്മളുടെ ഒപ്പം കൂടുകയും അതൊരാശംസയിലൂടെ എങ്കിലും ഒപ്പം കൂടുന്നത് ഏറ്റോം നല്ല കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓണത്തുമ്പികളെ കാണാൻ നമുക്ക് സാധിക്കും ഇതൊരു കൊയ്ത്തുത്സവം ആയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നല്ല കാലാവസ്ഥയായിരിക്കും എന്നുള്ളതും വേറെ ഒരു കാര്യം